വൈദ്യുതി ഉപയോഗിക്കുന്നത് ഗ്രാമങ്ങളില് പ്രധാനമായിട്ടും കൃഷിയുടെ ആവിശ്യത്തിനാണ് കൃഷിയുടെ ആവിശ്യത്തിനായി വൈദ്യുതി ഉപയോഗിച്ച് ജലസേചനം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെത്തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മിക്ക വന് ചില വന പ്രദേശങ്ങളില് വൈദ്യുതി ഉപയോഗിച്ച് വന്യജീവികള് കയറാതെ വേലികള് കെട്ടുന്നുണ്ട് വന്യജീവികളുടെ ആക്രമണത്തില്നിന്ന് കൃഷിയെ രക്ഷപെടുത്തുന്നതിന് സഹായിക്കുന്നു